എൻ്റെ അതിഥികളായിട്ട് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ശ്രീനഗർ ഏരിയയിലാണേ ശ്രീനഗർ മീൻസ് ഒരു നമ്മുടെ ഇന്ത്യയുടെ യൂറോപ്പ് ആണത് ഇന്ത്യയുടെ യൂറോപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇന്ത്യയുടെ പരിസ്ഥിതി പരിസ്ഥിതിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ പരിസ്ഥിതിയും നമ്മുടെ ഇന്ത്യയുടെ പരിസ്ഥിതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ശ്രീനഗർ എന്നുപറഞ്ഞ സ്ഥലം യൂറോപ്പിനെ പോലെ തന്നെയാണ് അവിടെ എപ്പൊഴും ക്ലൈമറ്റ് വിൻറർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നല്ലത് തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അവിടെ പോയി നോ കാണണം കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതുകൂടാതെ പല സ്ഥലങ്ങളും അവിടുത്തെ കൃഷികളും അവിടുത്തെ ആപ്പിൾ ആപ്പിൾ ആണ് മെയിൻ ആയിട്ട് ഉള്ളത് ബാക്കി നെല്ലും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അതൊക്കെ കുറഞ്ഞ രീതിയിലേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ കൊണ്ടു പോവുവാണെങ്കിൽ നിങ്ങളെ ശ്രീനഗർ ഏരിയയിലേക്ക് കൊണ്ടുപോകാം പക്ഷേ ഈ യാത്ര കൂടുതലുണ്ട് അവിടെ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല കാലാവസ്ഥയിൽ ഇവരെ കുറേ കാര്യങ്ങൾ കാണാനും എടുക്കാനും മനസ്സിലാക്കാനും കഴിയും അപ്പം അങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ശിംല ശിംല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥലം തന്നെയാണ് ശിംല ഏറ്റവും ഭംഗിയേറിയ സ്ഥലമാണവിടെ അത് ഇതെല്ലാം ഹിമാലയ പർവ്വതത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ഒക്കെ പോയി കണ്ട് കേട്ട് വരുക എന്നുള്ളതല്ലാതെ വന്ന് സന്തോഷിക്കാൻ പറ്റും നമുക്ക് ആ ഏരിയ കണ്ടിട്ട് നമ്മുടെ നാടും ആ നാടും കൂടെ കണ്ടുകഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനോദസഞ്ചാരം നടത്തുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ നല്ല സ്ഥലങ്ങൾ ഒക്കെയുണ്ട് തിരുവനന്തപുരം കോവളം സമുദ്രതീരമാണ് സമുദ്രതീരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം വടക്കേ ഇന്ത്യക്കാരെല്ലാം വന്നിട്ട് സമുദ്ര സമുദ്രത്തെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് അവിടെ ഏരിയയിൽ സമുദ്രം ഇല്ലല്ലോ നമുക്ക് കേരളത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സമുദ്രങ്ങളേ ഉള്ളൂ നല്ല കാഴ്ച്ചകളും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട് കോവളം എന്നുപറഞ്ഞ സ്ഥലം നല്ല സ്ഥലമാണ് അവിടെ പോയി ആസ്വദിക്കാനുള്ള ഇതുണ്ട് പിന്നെ അവർക്ക് താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ വേറെ വേറെയും ഇന്ത്യയിൽ ഒത്തിരി കാര്യങ്ങൾ ഇടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ കൽക്കത്ത ബോംബേ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ മല മലകളെ ഉദ്ദേശി ഉദ്ദേശ്ശിക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ അതും ഹിമാലയത്തോട് ചേർന്ന സ്ഥലങ്ങളാണ് നൈനിതാൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ വേറെ വേറെ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി വരാം ആസ്വദിക്കാം ഇവിടെ വന്ന് നമുക്ക് അതുപോലെ നമുക്ക് അപ്പം ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ ഞാൻ ചുരുക്കം ഒരു ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ ജമ്മു കാശ്മീരിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ കാലാവസ് യൂറോപ്പിലെ കാലാവസ്ഥയും ജമ്മുവിലെ കാലാവസ്ഥയും രണ്ടും രൺ ഒരുപോലെ ആണ് അതേ സമയം നമ്മുടെ ഈ തെക്കോട്ട് ഇന്ത്യയുടെ ഈ വടക്ക് കഴിഞ്ഞ് തെക്കോട്ട് പോയിക്കഴിഞ്ഞാൽ കാലാവസ്ഥ വളരെ മോശമാണ് അതിന് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു കിലോ ആണി ഒരു കിലോ ആണി വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുക ഇവിടെയും യുറോപ്പിലോ അല്ലെങ്കിൽ ശ്രീനഗറിലോ സൂക്ഷിക്കുക ആ ആണി പത്ത് വർഷം കഴിഞ്ഞാലും തുരുമ്പെടുക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം എന്തുവാ ഹലോ ഇപ്പം ഞാനൊരു വിനോദ സഞ്ചാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ മോളേ ഇത് ഓഫ് ആവുന്നില്ല ഞാനേ കുറേ സംസാരിച്ചു എന്നിട്ടിത് ഓഫ് ആവുന്നില്ല